സ്കൂളിന് പുറത്തൊള്ള ട്യൂഷനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ അത് വളരെ നല്ലതാണ് കാരണം സ്കൂളിൽ ചിലപ്പം നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്തറുപത് കുട്ടികളുണ്ടാവും ആ ടീച്ചർമാരൊക്കെ പഠിപ്പിക്കും അത്യാവശ്യം നല്ലോണം അവർ പഠിപ്പിക്കും പക്ഷെ എല്ലാ കുട്ടികളിലും അത് എത്തിച്ചേരണംന്നില്ല കാരണം എന്താന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രീതി ഓരോ തരായിരിക്കും അപ്പോൾ ചിലപ്പോൾ ടീച്ചർമാർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരവറ് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിട്സ് ഒക്കെയുണ്ടാവുള്ളു നമുക്ക് അതായത് അവർക്ക് ക്ലാസ്സെടുക്കാൻ പറ്റുന്നെ അപ്പോൾ എല്ലാ കുട്ടികൾക്കും അതായത് അവരുടെ സംശയം ഡൗട്ട് കാര്യങ്ങളൊക്കെ എല്ലാം തീർത്ത് തീർത്ത് കൊടുക്കാൻ പറ്റീന്ന് വരില്ല അപ്പന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ക്ലാസ്സിന്ന് കിട്ടുന്നത് നമ്മൾ പഠിക്ക പിന്നതുകഴിഞ്ഞ് ട്യൂഷൻ അങ്ങൻത്ത കാര്യങ്ങളൊക്കെ പോവുമ്പോൾ നമുക്ക് അവിടെന്ന് എന്ത് അതായത് നമുക്ക് ക്ലാസ്സിൽ പഠിപ്പിച്ചേൽ എന്തൊക്കെ ഡൗട്ടുകൾ വന്നൂന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ട്യൂഷൻ ക്ലാസ്സിലോ അങ്ങനെന്തിലെങ്കിലും പോയിട്ടത് അതായത് ആ ഡൗട്സൊക്കെ ക്ലിയർ ആക്കാ അപ്പന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എക്സാമ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നല്ലോണം അതായത് നല്ലോണം എഴുതാൻ പറ്റും അതിന് നമുക്ക് അതായത് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കും ട്യൂഷനിലും പഠിക്കും അപ്പോൾ നമുക്ക് രണ്ട് സ്ഥലത്തും ഒരേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടന്നത് തലയിൽ നിക്കും അപ്പോൾ ട്യൂഷൻന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ്